ആ വിനോദ് ഞാൻ വിളിക്കുന്നത് പുത്തൻ പുരയിൽ നിന്നാണേ ഓക്കെ ഞാന് ഇന്നലെ തന്നെ ഒര് ഓട്ടോയ് ബുക്ക് ചെയ്തായിരുന്നല്ലൊ എനിക്ക് രാവിലെ ഒമ്പത് മണിക്കാണ് വേണാട് വേണാടിന് എനിക്ക് എറണാക്കുളത്ത് പോകേണ്ടതാണ് ഇപ്പോൾ സമയം എട്ടരയായല്ലോ അതെയോ മെഡിക്കൽ ക്കോളേജിലാണെന്നോ അപ്പം ഞാന് എന്ത് ചെയ്യണം എനിക്ക് അത്യാവശ്യവായിട്ട് ഒര് കാര്യം ചെയ്യാമോ വിനോദ് മറ്റേതെങ്കിലു ഒര് ഓട്ടോ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാമോ ഇപ്പം എട്ടര ആയില്ലെ ഇനി അര മണിക്കൂറും കൂടല്ലെ ഉള്ളൂ അ പോകുന്ന വഴിക്കൊക്കെ ബ്ലോക്കാണെങ്കിൽ എനിക്കവിടെ എത്താൻ താമസിച്ചാൽ ഞാനെന്ത് ചെയ്യും എനിക്ക് ട്രെയിൻ ട്രെയിൻ മിസ്സായാലെ പത്ത് മണിയാകുമ്പം എനിക്ക് ഓഫീസിൽ കയറേണ്ടതാണ് ഓക്കെ ആരെയെങ്കിലും കൂട്ടുകാരെയോ ആരെയെങ്കിലും വിളിച്ച് എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരുമോ ഇനി ഇപ്പം ഞാന് ഇനി ഇപ്പം ഒരാളെ വിളിച്ചാൽ തന്നെ ആരും വന്നില്ലായെങ്കിൽ എന്ത് ചെയ്യും അത് തന്നേയല്ല എൻ്റ കയിൽ ഇപ്പം നമ്പറു കയ്യില് നമ്പറൊന്നും ഇല്ലതാനും ഏതെങ്കിലും ഫ്രണ്ട്സിനെയോ ആരെയെങ്കിലും ബി വിളിച്ചേ എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരണേ ട്രെയിന് എനിക്ക് മിസ്സാകല്ലെ കേട്ടോ ഓക്കെ താങ്ക്യൂ